വയനാട് ജില്ലയിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തപ്പെട്ടതാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വേനൽക്കാലത്തും മറ്റു ജില്ലകളേക്കാൾ ചൂട് കുറവ് അനുഭവപ്പെടുന്നത് ഈ വയനാട്ടിലാണ് അതെപ്പോലെത്തന്നെ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തണുപ്പ് കാലത്ത് ഏറ്റവും തണുപ്പ് കൂടുതൽ ഉള്ളതും ഈ വയനാട്ടിൽ തന്നെ കേരളത്തിലെ ഊട്ടി എന്നാണ് വയനാട് അറിയപ്പെടുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിൽ ഞാൻ അനുഭവിച്ച മറക്കാനാവാത്ത അനുഭവം എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം തന്നെയാണ് മനുഷ്യരുടെ പ്രവർത്തി മൂലമുണ്ടായ ഏറ്റവും വലിയ അനുഭവും അത് തന്നെയാണ്

മഴയും കാറ്റും ഒരുപാട് അനുഭവിച്ചു ഒരുപാട് നാശനഷ്ടങ്ങളും എൻ്റെ ജീവിതത്തിൽ വന്നു വയനാട്ടിൽ വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ് ഏറ്റവും ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥ എപ്പഴും നമ്മുടെ നാട്ടിൽ നാം അനുഭവിക്കുന്നത് കാലാവസ്ഥയെപ്പറ്റിയുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് കാലാവസ്ഥ മൂലം നമുക്കൊരുപാട് ലാഭങ്ങളും ഒരുപാട് നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട്